ആ അതെ അതെ എ സി സർവീസ് എന്താണ് പറയൂ ആ ഞങ്ങൾ നിങ്ങളുടെ വീട് എവിടെ ആണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരാം ആ ഞങ്ങൾ ആ പുതിയ നിങ്ങളുടെ കമ്പനി എന്ത് ചെയ്യുന്നു ആ ആ അപ്പോൾ ഗോഡറേജിൻ്റെ സംസങ്ങിൻ്റെ ഒക്കെ നല്ല ഫൈവ് ജി യുടെ സാധനങ്ങൾ ഉണ്ട്

റേറ്റ് ഒരു അൻപത് അൻപത് എഴുപത് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഏതാണ് ആ നിങ്ങൾ ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഓഫർ അത് ഇട്ട് തരാം ഓഫർ ഉണ്ട്

ആ ആ റെഡി ആക്കി തരാം

ആ അത് ആ ഇങ്ങോട്ട് കൊണ്ടുപോരെ നമുക്ക് നോക്കാം

ഞങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാൻ വന്നോളു ഇല്ലേൽ നിങ്ങൾക്ക് നല്ലത് നോക്കി പോകാമല്ലോ

ആ ഓക്കെ ആ താങ്ക്യൂ